ഹല്ലോ ആ തോമസ് ചേട്ട നിങ്ങൾ വിള ഇൻഷുറൻസിൻ്റെ ക്ലെയിം ഫയൽ ചെയ്തൊ പരിചയമുള്ള ആളല്ലെ അപ്പം അതെങ്ങനെയാണത് ക്ലെയിം ചെയ്യേണ്ടത് നമ്മളിപ്പം പാട്ടത്തിൻ്റെ റസീപ്റ്റ് കൊടുക്കാണൊ അതൊ എൻ്റെ ആധാറിൻ്റെ മറ്റേ രേഖകളൊക്കെ കൊടുത്താൽ മതിയായിരിക്കുമോ അതെങ്ങനെയാണെന്നെനിക്കൊന്നു പറഞ്ഞു തരുമോ നിങ്ങൾ ചെയ്തിട്ടുള്ളതല്ലെ എനിക്കതേക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അതുകൊണ്ടാണെ ഞാനിപ്പം ചോദിച്ചത് എന്താണേലും എനിക്കൊന്നു പറഞ്ഞു താരാമോ ആ ശരി ഓക്കെ